നമ്മുടെ പ്രദേശത്തെന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ നമുക്കിവിടെ ഹോസ്പിറ്റലുകള് ഇഷ്ടം പോലെ ഉണ്ട് കാരണന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ജില്ലയില് ഹോസ്പിറ്റലുകൾ ഇല്ലാത്തൊരു സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ കുറവാണ് ഇപ്പോൾ ഫാത്തിമ ഹോസ്പിറ്റല് മിംമ്സ് ബേബി മെമ്മോറിയല് നമ്മുടെ ഗവൺമെൻ്റിൻ്റെ തന്നെ മെഡിക്കൽ കോളേജ് കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോടാണ് ഉള്ളത് അപ്പ അവിടെന്നു പറഞ്ഞു കഴിഞ്ഞാല് പല രീതിലുള്ള അതായത് നമുക്ക് സ്കാൻ ചെയ്യാനും അങ്ങനത്തെ പല രീതിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എങ്ങനെയായാലും നമ്മള് പേയ്മെൻ്റ് ചെയ്തിട്ട് വേണം എക്സ്റേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എം ആർ എ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിംമ്സിലക്കെ ഉണ്ട് പിന്നെ അല്ലാണ്ടുള്ള ഷാജീസ് എന്നു പറഞ്ഞിട്ടൊരു എക്സ്റേൻ്റൊക്കെ ഒരു കേന്ദ്രം കാര്യങ്ങളുണ്ട് അവിടുന്നാണ് കൂടുതലായിട്ടും സി റ്റി സ്കാനും പിന്നെ എം ആർ ഐയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അതിലൂടെ നമുക്ക് പല രീതിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിട്ട് സാധിക്കുന്നതാണ് പിന്നെ അല്ലാണ്ടുള്ള രക്തം മൂത്രം ഇതൊക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലാബുകളാണ് അപ്പ ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് പേയ്മെൻ്റ് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ പല രീതിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയിണ്ടെന്നു വേണമെങ്കിൽ പറയാൻ പറ്റും